സമൂഹ മാധ്യമങ്ങൾ നിങ്ങൾ നിങ്ങൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്യാറുണ്ട് ഞങ്ങള് ചെയ്യാറുണ്ട് എന്താന്ന് വെച്ചാല് ഞമ്മള് ഇങ്ങനെ ജീവിച്ചിരുപ്പുണ്ടെന്ന് അറിയിക്കാനൊരുക്റ്റം പറയും പക്ഷേ നമ്മൾ പുതിയ പേഷനിലേക്ക് മാറുകയോ അല്ലെങ്കിൽ പുതിയ ഇതെന്താ നമ്മൾ പുതിയ ഇതൊക്കെ വരുമ്പോൾ ട്രെൻ്റ്സൊക്കെ വരുമ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടി പിന്നേ ഓരോ സ്ഥലങ്ങളിൽ പോവുമ്പോൾ ഇങ്ങനെ പോയി അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി പിന്നെ സ്റ്റാറ്റസിടുക സ്റ്റോറിയിടുക അങ്ങനെയൊക്കെയിടാം മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമാണ് ഞാൻ എൻ്റെ ഇതിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വാട്സപ്പ് വാട്സപ്പിൽ സ്റ്റാറ്റസിടും പിന്നെ ഈ ഫേസ്ബുക്കിൽ വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഇടലുണ്ട് പോസ്റ്റോ ഇടലുണ്ട് ഇൻസ്റ്റാഗ്രാമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്റ്റോറി ഇടലുണ്ട് നമ്മൾ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ എവിടേ കറങ്ങാൻ പോവുന്നിടത്തു നിന്ന് ആ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്നൊരു പത്ത് കിലോമീറ്ററേ പോയിട്ടുണ്ടാവു അല്ലെങ്കിൽ ഒരു ഒര് കിലോമീറ്റർ ഇപ്പുറത്ത് പോയാലും നമ്മൾ ഫോട്ടോ എടുത്ത് അതൊക്കെ സ്റ്റോറിയിടും എന്താണെന്നു വെച്ചാൽ അത് ഒരു മനസ്സിൻ്റെ സന്തോഷം തരും അങ്ങനത്തെ ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും എല്ലാവരും ഇങ്ങനെ ചിലർ മാത്രമല്ല എല്ലാവരും എന്തായാലുമിടും അതുറപ്പാണ് എന്തുകൊണ്ടാണ് എല്ലാവരുമിടും അതൊരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിടുന്നതാണ്